ഹലോ ഷിബുവാണോ ഞമ്മക്ക് സോളാറിൻ്റെ സിസ്റ്റമൊന്നു വെക്കാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു പുരയുടെ മുകളിൽ അതു പ്രധാനമന്ത്രിയുടെ ഇതിനകത്തു കൂടി ചെയ്യുന്ന ഇതിൽ എന്തേന് അത് ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ അത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു കാര്യങ്ങൾ സോളാർ വെക്കുന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതിൻറ്റെ കാര്യങ്ങളൊക്കെ എങ്ങനാ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്

ഇതു ഞങ്ങളെ ഒന്നു സഹായിക്കണേ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു സഹായിക്കണെ ഞങ്ങളെ ഇതൊന്നു പറഞ്ഞു തരണേ